ഒരു ബിസ്സ്നസ്സ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ വലിയ മൂലധനം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആയിരം രൂപവച്ച് അഞ്ഞൂറ് രൂപവച്ചു വരെ ബിസിനസ്സുകള് തുടങ്ങിയ ആൾക്കാരുണ്ട് ഇന്ന് കോടീശ്വരൻമാരായവരെ ആൾക്കാരുണ്ട് ഇപ്പോള് നമ്മള് തുടങ്ങുന്നതിൻ്റെ സാഹചര്യം അനുസരിച്ചാണ് കാരണം നമ്മളിപ്പോള് ചെറിയയൊരു ഒരു ഇപ്പോള് പൈസ ഇല്ലാതെ തന്നാണു തുടങ്ങുക കാരണം നമ്മളുടെയടുത്ത് ആശയമുണ്ടെന്നുണ്ടെങ്കില് ആൾക്കാരെ കൂട്ടിയിട്ട് എന്താ പറയുക നമ്മളാശയം പറഞ്ഞുകൊടുത്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം അല്ലാന്നുണ്ടെങ്കില് നമ്മള് ജനറലിയായി നമ്മളൊരു പൈസേൻ്റെ വാല്യു ആണ് ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ നമ്മള് ഇപ്പൊരു നമ്മള് ബിസ്നസ്സ് തുടങ്ങുന്നതിന്റെ ഇതിൻ്റെ വലിപ്പമനുസരിച്ചാണ് ഇപ്പോള് ചെറിയൊരു ബിസിനസ്സ് എന്നു പറഞ്ഞാല് നമുക്ക് വലുതാക്കാന് ഇപ്പൊരു പതിനായിരം രൂപയുണ്ടെങ്കില് ഒരു ചായക്കട തുടങ്ങാം ഞമ്മള്ക്ക് അല്ലാന്നുണ്ടെങ്കിൽ അഞ്ഞൂറോ അറുന്നൂറോ ഒക്കെ രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയോരു ഇത് തുടങ്ങാം എന്ത് ഈ ഫോണിൻ്റെ കവറുകള് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കില് നമുക്ക് ചെറിയ ക്രാഫ്റ്റിങ്ങ് ചെയ്തിട്ട് ഇൻവിറ്റേഷൻ കാര്ഡുകള് ഉണ്ടാക്കിയിട്ട് അങ്ങനെ പല രീതിയില് നമ്മള് തുടങ്ങുന്ന ബിസിനസ്സിനെ സംബന്ധിച്ചാണ് നമ്മളെ മൂലധനം കണക്കാക്കുന്നത് അപ്പോള് നമ്മള് വലിയ കോടികളെ ബിസിനസ് നമ്മള് എന്താ പറയുക തുണി ഷോപ്പ് തുടങ്ങാന്നുണ്ടെങ്കില് ലക്ഷങ്ങളാവും അതേപോലെ നമ്മളൊരൂ ഇപ്പോള് സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണെങ്കില് അതിനനുസരിച്ച് ഓരോ സംഭവത്തിനനുസരിച്ചാണ് ഇതിൻ്റെ മൂലധനം വരുക പിന്നേ എന്താ പറയുക ബിസ്നസ്സ് തുടങ്ങാനെന്ന് പറഞ്ഞാല് നമ്മള് ആദ്യം സ്ഥലം കണ്ടെത്തണം നമുക്ക് ആ പ്രദേശത്തെ അനുയോജ്യമായ ആളുകൾക്ക് അനുസരിച്ചുള്ള ബിസിനസ്സായിരിക്കണം നമ്മളിപ്പോള് എന്താ പറയുക ഒരു പാർക്കില് അവിടെ കൊണ്ടോയിട്ടൊരു പലചരക്ക് കട തുടങ്ങിയിട്ട് കാര്യമില്ല അപ്പോള് ഓരോ സ്ഥലത്തിനനുസരിച്ചുള്ള ബിസിനസായിരിക്കണം നമ്മള് തുടങ്ങാൻ കരുതിയ ബിസിനസ്സിനു പറ്റിയൊരു സ്ഥലം നമ്മളാദ്യം കണ്ടെത്തുക അതിനുശേഷം നമ്മള് അതിനിള്ള റൂമും കാര്യങ്ങളുമൊക്കെ എഗ്രിമെന്റ് ഒക്കെ എഴുതി റെഡിയാക്കിയിട്ട് പിന്നേ ഗെവൺമെന്റില്നിന്ന് എടുക്കാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക പിന്നീട് നമുക്ക് വേണ്ട രീതിയിലത് ഡിസൈൻ ചെയ്ത് അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു സാധാരണൊരു ബിസിനസ് തുടങ്ങുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് ചട്ടങ്ങളെന്ന് പറഞ്ഞാല്